എൻ്റെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസമുള്ളവരായിരുന്നു അവര് ഞാൻ സ്കൂളിലായിരിക്കുന്ന സമയത്തു തന്നെ എനിക്കത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്ക പറഞ്ഞുതന്നിട്ടുള്ളത് എൻ്റെ മാതാപിതാക്കള് തന്നെയാണ് എന്നു പറയുമ്പോള് അക്ഷരങ്ങളെഴുതുന്നതെങ്ങനെയാണ് അത് ഉച്ചരിക്കുന്നതെങ്ങനെയാണ് അല്ലെങ്കില് എനിക്കെന്തെങ്കിലുമൊരു സംശയമുണ്ടാകുന്ന ഒരു സാഹചര്യത്തില് അതെങ്ങനെയാണ് അതു ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുതരാനുള്ള ബോധവും ബോധ്യവും എൻ്റെ മാതാപിതാക്കന്മാർക്കുണ്ടായിരുന്നു അവർക്ക് ജോലി സംബന്ധമായി നോക്കുമ്പോള് മറ്റു സർവീസുകളിലൊന്നും അവരുൾപ്പെട്ടിരുന്നില്ല എന്നുള്ളതേയുള്ളു കൃഷിക്കാരായിരുന്നു എങ്കിൽ പോലും അവര് വിദ്യാഭ്യാസമുള്ളവർ തന്നെ ആയിരുന്നു അപ്പോള് അതിനെക്കുറിച്ച് പറയുമ്പോള് അവരുടെ അവർക്കു വിദ്യാഭ്യാസം കൊടുക്കാനവരുടെ കാർണവന്മാര് അല്ലെങ്കിലവരുടെ മാതാപിതാക്കള് ശ്രമിച്ചു എന്നു പറയുമ്പോൾ മാതാപിതാക്കന്മാർക്ക് വിദ്യാഭ്യാസത്തെ കുറിച്ച് നല്ല ബോധവും ബോധ്യവും ഉണ്ടായിരുന്നു എന്നാണു ഞാൻ മൻസ്സിലാക്കുന്നത് പിന്നെ പണ്ടത്തെ ഒരു അവസ്ഥ വച്ചുനോക്കുമ്പോള് എൻ്റെ മാതാപിതാക്കളുടെ മാതാപിതാക്കന്മാർ അവർക്കെത്രമാത്രം വിദ്യാഭ്യാസമുണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയില്ല കാരണം അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായമെന്നു പറയുന്നതുതന്നെ ഇന്നു നമ്മള് കണ്ടുവരുന്ന അല്ലങ്കിൽ നമ്മള് ചെയ്തുപോരുന്ന വിദ്യാഭ്യാസ രീതിയൊന്നും അല്ല അപ്പോള് അന്നത്തെ അന്നത്തെ കാലത്തപ്പോള് ഇങ്ങനെ ക്ലാസ് കയറ്റങ്ങളല്ലെങ്കിൽ ക്ലാസുകള് തന്നെ പറയുന്നത് ഇന്നത്തെ രീതിയിലൊന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസാ ഒരു രീതീലായിരുന്നില്ല എന്നാണ് എനിക്കു തോന്നുന്നത് ഇപ്പോള് അവിടെ ഒരു ഒന്നാം ഫോറം രണ്ടാം ഫോറം മൂന്ന് നാല് അങ്ങനെയൊക്കെ എത്തുമ്പോള്ത്തന്നെ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞതായിട്ടാണ് കരുതന്നത് അവരവിടെ വിദ്യാഭ്യാസം നേടിയ ഒരു തലത്തിലെത്തുമ്പോഴേക്കു തന്നെ അവരുടെ ജോലിക്കുള്ളതോ അല്ലെങ്കിലതിനുസരിച്ചുള്ളതോ ആയൊരു ലക്ഷ്യത്തിലെത്തി ചേര്ന്നവരായിരുന്നു എൻ്റെ മാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ കാലത്തെ വിദ്യാഭ്യാസവും അതിനനുസരിച്ച്ള്ള രീതിയാണവര് പിൻതുടരുന്നത് എന്നാണ് ഞാൻ മൻസ്സിലാക്കുന്നത് പിന്നെ വിദ്യാഭ്യാസ സൗകര്യങ്ങളെ കുറിച്ചു നോക്കുമ്പോള് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഇന്നു നമ്മളെത്തിനിൽക്കുന്നതിൻ്റെ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും പിന്നിൽ എന്നു പറയുമ്പോള് അന്നത്തെ വിദ്യാഭ്യാസ രീതി പുസ്തകങ്ങളെ മാത്രമാശ്രയിച്ച് അതല്ലെങ്കില് അധ്യാപകര് പറഞ്ഞുകൊടുക്കുന്ന അറിവു മാത്രം നേടുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത് അതിലുപരിയായി ഇന്നത്തെ പോലെ പിന്നെ നമുക്കു കിട്ടുന്നതുപോലെ ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളോ ക്ലാസ് മുറികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് അവരിൽ നിന്നും നമുക്കു മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ വെല്ലുവിളികളെന്നു പറയുമ്പോള് ഒന്നാമതായിട്ട് പുസ്തകങ്ങള്തന്നെ നമുക്കു നോക്കുമ്പോള് അറിയാം അവർക്കു പഠിക്കാനാവശ്യമായ പുസ്തകങ്ങള് പാഠപുസ്തകങ്ങള് അവർക്കു ലഭ്യമായിരുന്നില്ല എന്നാണ് മൻസ്സിലാകുന്നത് എന്നു പറയുമ്പോള് ഇന്നത്തെ കാലത്ത് കുട്ടികളെത്രയുണ്ടോ അത്രയും കുട്ടികൾക്ക് ഒരു പുസ്തകം കൂടുതലെങ്കിലും നമുക്ക് സ്കൂളുകളിലെത്തിച്ചേരുന്ന സിസ്റ്റമുണ്ട് പക്ഷേ അന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളുമൊന്നും പാഠപുസ്തകമുപയോഗിച്ചായിരുന്നില്ല വിദ്യാഭ്യാസം നടത്തിയിരുന്നത് അതുപോല തന്നെ യാത്രാ സൗകര്യമെന്നു പറയുന്നതും അന്നത്തെ കാലത്തു വളരെ പരിമിതമായിരുന്നു എൻ്റെ മാതാപിതാക്കളാണെങ്കിലും അവര് തന്നെ പറയുമ്പോള് എന്നാ കിലോമീറ്ററുകളോളം നടന്ന് സ്കൂളിലെത്തിയ സമ്പ്രദായ അങ്ങനെ ആ അതിനെക്കുറിച്ചൊക്കെയാണവര് പറഞ്ഞിട്ടുള്ളത് അതിലുപരിയായിട്ട് ഇപ്പോള് മഴക്കാലമായി കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള ഡ്രസ്സോ അതിനുള്ള എത്തിച്ചേരുന്നതിനുള്ള അല്ലെങ്കില് സ്കൂൾ പുസ്തകങ്ങള് സൂക്ഷിക്കുന്നതിനുള്ള നല്ല ബാഗുകളോ ഇതൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോള് ഇന്നത്തെ ഒരു സാഹചര്യത്തിലേക്കു നമ്മള് വരുമ്പോള് തീർച്ചയായിട്ടും ഒരുപാടൊരുപാട് എല്ലാ മേഖലകളിലും മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് വെറും മാറ്റങ്ങളല്ല അതിനെ പുരോഗതി എന്നു തന്നെ നമുക്കു പറയാം അതിലെടുത്തു പറയേണ്ടതാണ് വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങള് അല്ലെങ്കില് പുരോഗതി ഇപ്പോള് ഇന്നത്തെ ഇന്നത്തെ കാലത്ത് കുട്ടികളെ സംബന്ധിച്ചുപറഞ്ഞാല് അവരിപ്പോള് വീട്ടിലിരുന്നുകൊണ്ടുതന്നെ അവർക്കു വേണമെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളില് ബുദ്ധിമുട്ടുണ്ടായാല് വീട്ടിലിരുന്നു കൊണ്ടു തന്നെ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള സാഹചര്യമുണ്ട് എന്നു പറയുമ്പോള് സ്മാർട്ട് ഫോണുകള് വന്നു ഇൻ്റർനെറ്റ് വന്നു അങ്ങനെയുള്ള എല്ലാ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എന്നു പറഞ്ഞതുപോലെ ഈയുള്ള സൗകര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് എന്നു പറയുമ്പോള് ഇന്നത്തെ കാലത്തെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായമെന്നു പറയുന്നതു തീർച്ചയായിട്ടും പണ്ടത്തെ വിദ്യാഭ്യാസ രീതിയുമായിട്ട് അല്ലെങ്കിലാ ഒരു കാലഘട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോള് ഒരുപാടൊരുപാടു പുരോഗമിച്ചിട്ടുണ്ട് അപ്പോള് നമ്മുടെ നമ്മളുടെയൊക്കെ കാലഘട്ടത്തില് നമ്മള് പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസ രീതി അതു നമ്മുടെ മാതാപിതാക്കള് കാണുമ്പോള് അവർക്ക് അത് അത്ഭുതമായിട്ടാണു തോന്നു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു വിരൽത്തുമ്പിൽ നമുക്കെല്ലാം ലഭ്യമാകുന്ന ഒരു കാലഘട്ടത്തിലേക്കു നമ്മള് വന്നിട്ടുണ്ട് അതേ സമയം നമ്മുടെ കാർന്നോന്മാരെ കഴിഞ്ഞിട്ട് അവരുടെ മാതാപിതാക്കളിലേക്കു പോയാല് അവർക്കൊന്നും ഇതൊന്നും ഒരിക്കലും സങ്കൽപ്പിക്കാൻ പോലും കഴിയുന്ന മാറ്റങ്ങളായിരുന്നില്ല അത്രമാത്രം മാറ്റങ്ങളാണിന്നു ലോകത്തു നമ്മള് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ നേടിയിട്ടുള്ളത് പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയില് വളരെ വളരെ മാറ്റങ്ങൾ ഖണ്ഡിതമായ മാറ്റങ്ങൾ നല്ല പുരോഗതി കാണിക്കുന്ന നല്ല മാറ്റങ്ങളാണു വന്നിട്ടുള്ളത് എന്നാണ് ഇതിനെക്കുറിച്ചു പറയാനുള്ളത്